ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചത് ഒരു പ്രൈവറ്റ് സ്കൂളിൽ ആയിരുന്നു അവിടെ അവിടെ അത്യാവശ്യം നല്ലൊരു ലൈബ്രറിയുണ്ടായിരുന്നു ഏകദേശം ഇംഗ്ലീഷിൻ്റെയും ഇംഗ്ലീഷ് പുസ്തകങ്ങളുണ്ടായിരുന്നു പഠിക്കാനുള്ള നമ്മുടെ സിലബസ് റിലേറ്റഡായിട്ടുള്ള കുറേ പുസ്തകങ്ങളുണ്ടായിരുന്നു പിന്നെ കഥാബുക്കുകൾ വായിക്കാനുള്ള കഥാ ബുക്കുകൾ മലയാളത്തിൻ്റെ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു പിന്നെ പാട്ടിൻ്റെ ചെറിയ ചെറു കഥകളുടെ അങ്ങനെ ഓരോ സെക്ഷനായിട്ട് നല്ലൊരു ലൈബ്രറിയായിരുന്നു അതിൽ അതിലെനിക്ക് കാലം സാറിൻ്റെ വിങ്സ് ഓഫ് ഫയർ ആണ് ഞാൻ വായിച്ചതിൽ എനിക്കേറ്റവും ഇഷ്ടമുള്ള ഒരു പുസ്തകം അത് നല്ലൊരു ഇൻസ്പയറിങ് ആയിട്ടൊരു പുസ്തകമാണ് പിന്നെ അതിൽ നമുക്ക് എന്തൊക്കെയാണ് എങ്ങനെയാവണം സാ സാറിൻ്റെ ജീവ ചരിത്രം ആയത് കൊണ്ട് നമുക്ക് അതിൽ നിന്ന് കുറേ ഇൻസ്പിരേഷൻ ഉണ്ടായിരുന്നു സാർ എങ്ങിനെയാണ് ജീവിച്ചത് എങ്ങിനെയാണ് സാറ് ആ ലെവലിൽ വരെ വളർന്ന് എത്തിയതെന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആ പുസ്തകം വായിച്ചതോടുകൂടി മനസ്സിലാക്കാൻ പറ്റും